ബഷീറിൻ്റെ മതിലുകളെന്ന് പറയുന്ന നോവൽ ഞാൻ ഒരുപാട് വാ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട് അം അതിൻ്റെ അം ഒരു ജയിലിനുള്ളിൽ ആ മതിലിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് പ്രണയിക്കുന്ന രണ്ട് പേരുടെ ഒരു കഥയാണ് അത് കാണാതെ സൗണ്ടിലൂടെ മാത്രം അവർ പ്രണയിക്കുന്ന ഒരു കഥയാണ് ആ സ് ആ അത് അതിന് അതിനെ കുറിച്ചുള്ള ഒരു സിനിമ കാണാൻ വളരെയധികം ഇഷ്ടമാണ് ആ സിനിമ ഞാൻ കണ്ടിട്ടുമുണ്ട്